ഹലോ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് സാറേ സാറേ ഞാൻ വിളിക്കുന്നത് ഒരു കാര്യം പറയാനായിട്ടായിരുന്നു സാർ എൻ്റെ കോളേജ് ഐ ഡി കാർഡ് മിസ്സ് ആയി എൻ്റെ കയ്യിൽ നിന്ന് എനിക്കത് പുതിയ ഒരു ഐ ഡി കാർഡ് എടുക്കാൻ വേണ്ടി എനിക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് സാർ അത് ഇന്നലെ ഞാൻ ആ ബസ്സിൽ അതെ സാർ പക്ഷേ ഞാൻ ആ ബസ്സിൽ വെച്ച് എനിക്ക് മിസ്സ് ആയതാണ് ഐ ഡി കാർഡ് തിക്കിലും തിരക്കിലും ആയിരുന്നു അങ്ങനെ മിസ്സ് ആയിപ്പോയതാണ് ഓക്കെ സാറേ ഓക്കെ സാർ ഫൈൻ ഞാൻ എത്ര രൂപ അടയ്ക്കണം സാർ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് എനിക്ക് നൂറ് രൂപ അടയ്ക്കാൻ ബുദ്ധിമുട്ട് ഉണ്ട് അപ്പം എനിക്ക് ഫൈൻ ഒന്ന് അടച്ച് തരുമോ ഞാൻ ഇനി ഇത് ആവർത്തിക്കില്ല അത് എനിക്കിട്ടാണ് ഓക്കെ സാറേ ഞാൻ എവിടുന്നാണത് വാങ്ങേണ്ടത് സാറേ ഓക്കെ സ് ഓക്കെ സാർ ഒ ഓക്കെ സാറേ ആ സാർ അത് ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ എൻ്റെ കയ്യിൽ നിന്നൊന്ന് പൊട്ടി പറ പറിഞ്ഞ് താഴെ വീണ് പോയതാണ് പിന്നെ ഞാൻ അറിഞ്ഞില്ല വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഐ ഡി കാർഡ് നഷ്ടപ്പെട്ടു എന്നുള്ളത് ആ സാർ എൻ്റെ ഫൈൻ സാർ ഒന്ന് ഒഴിവാക്കി തരുവോ മറ്റുള്ളവർക്ക് അത് സാർ ഇതുപോലെ പോയി ആ എനിക്ക് ബുദ്ധിമുട്ട് ഉണ്ട് ഫൈൻ അടയ്ക്കാനായിട്ട് കാരണം ഞങ്ങളുടെ വീട്ടിൽ കുറേ കു ഇല്ല സാറേ ഞങ്ങൾ പരിമിതമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് സഹോദരിമാർ ഉണ്ട് അപ്പോൾ എല്ലാവരും പടിക്കുന്നവരാണ് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത് ഇളവ് ചോദിക്കു ഓക്കെ സാറേ താങ്ക് യു സാറേ